കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാട് വിദ്യാഭ്യാസവും തൊഴിൽ നേതൃത്വവും എന്നീ മേഖലയില് പാലക്കാട് ജില്ലയില് യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് പണ്ട് പാലക്കാട് തൊഴിലിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒരു കുതിച്ച് ചാട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കുതിച്ച് ചാട്ടം ഉണ്ടെങ്കിലും തൊഴിൽ മേഖലയെ വെച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പാലക്കാട് ജില്ലയില് യുവജങ്ങൾ നേരിടേണ്ടി വരുന്നത് പണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അത്യാവിശ്യം പുറകിലാണെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ പാലക്കാടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും തൊഴിൽ മേഖലയിൽ പാലക്കാടില് യുവജനങ്ങള് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് തൊഴിൽ ഇല്ലായ്മ അവർ പഠിച്ചിറങ്ങുന്ന സാഹചര്യത്തിന് അനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത് ഇതില് യുവജനങ്ങളുടെ പങ്ക് വലിയ ഒരു ഇതാണ് ഇത്രയും കാശ് കൊടുത്തിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജോലി ഇന്ന് പാലക്കാട് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ യുവസംരംഭർക്ക് അവരുടെ സംരംഭം തുടങ്ങാനുള്ള ഒരു കാലാവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലില്ല അവർക്ക് വേണ്ട പണവും മറ്റു കാര്യങ്ങളും എത്തിച്ച് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഇന്ന് പാലക്കാട് ജില്ല വളരെ പുറകിലാണ് ഇത് തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലത്